പത്ത് പതിനൊന്ന് ആയിരത്തിത്തൊള്ളായിരത്തി അറുപത്തി അഞ്ച് പതിനെട്ട് രണ്ട് ആയിരത്തിത്തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഇരുപത്തിയാറ് ഒൻപത് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രണ്ട് മൂന്ന് രണ്ടായിരത്തി രണ്ട് പതിനെട്ട് പതിനൊന്ന് രണ്ടായിരത്തി പതിനൊന്ന്